ഹലോ ഞാാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെക്കുറിച്ചാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണസംവിധാനം എങ്ങനെയാണെന്നുള്ളതാണ് അത് വച്ച് നോക്കുമ്പം മറ്റു രാജ്യങ്ങളിൽ തന്നെയാണ് ഭേദം കാരണം ഞാൻ പുറത്ത് പോയിട്ടുളള ഒരാളാണ് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ള ഒരാളാണ് അവിടെ എനിക്ക് ആരോഗ്യ സംരക്ഷണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ എല്ലാം പെട്ടന്നായിരുന്നു ഒരു എന്താ പറയുക ക്യൂ നിക്കലോ നിക്കാനോ ഒന്നും എല്ലാം എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രഗ്നൻസിയുടെ ടൈമിലാണ് പോവേണ്ടി വന്നിട്ടുള്ളത് ആ ഒരു ടൈമിൽ പോയി ചെക്കപ്പിന് ഡോക്ടർ കണ്ടു വേഗം തന്നെ അവിടെ ചെന്നു സീറ്റെടുത്തു ഡോക്ടറെ കണ്ടു പെട്ടന്ന് എല്ലാം സ്കാനിങ്ങ് ആണെങ്കിലും എല്ലാം പിന്നെ അതിനുശേഷം എനിക്ക് ഒരു ഒന്നൊന്നര മാസം ആയപ്പോഴേക്കും അബോഷൻ ആയിപ്പോയിട്ടുണ്ട് അപ്പോഴും പെട്ടെന്നുതന്നെ ഹോസ്പിറ്റലിൽ ചെന്നു പെട്ടന്ന് തന്നെ ക്യാഷ്വൽറ്റീസിൽ നിന്ന് സിസ്റ്റർമാരൊക്കെ ഭയങ്കര അത്രയും ഭയങ്കര ഹെൽ്ഫുള്ളായിരുന്നു പെട്ടന്ന് ഡോക്ടർ വന്നു എല്ലാം സ്കാനിങ്ങും എല്ലാം എന്തുകൊണ്ടാണ് പോയത് എല്ലാം ഭയങ്കര ചെലവാണെങ്കിലും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ഒരു ചെലവായിരുന്നു എനിക്കങ്ങനത്തെയൊരു ഫീലിംഗായിരുന്നു പുറത്ത് പോയപ്പോൾ കിട്ടിയത് പക്ഷെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ശുചിത്വമൊന്നും കുഴപ്പമില്ല ക്ലീനിങ്ങൊക്കെ മസ്റ്റാണ് അല്ലാണ്ട് നമ്മുടെ സാധാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പക്ഷേ ഇപ്പം വച്ച് നോക്കുമ്പോൾ വളരെ നീറ്റാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ക്യൂ നിൽക്കുക ഒരുപാട് നേരം നിൽക്കുക നമ്മൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ടാകും പക്ഷേ നമ്മൾ രാവിലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്യൂ നിന്ന് ഒരുപാട് ലേറ്റായി വെച്ചാൽ ലേറ്റാക്കിക്കും അവർ പരമാവധി ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി ലേറ്റാക്കിക്കും ഇപ്പോഴും അങ്ങനെത്തന്നെ നടക്കുന്നുണ്ടെന്നാണ് എന്റെയൊരു വിശ്വാസം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും പരമാവധി ലേറ്റ് ആക്കിക്കണതാണ് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ചെലവ് കൂടുതലാണ് എങ്ങനെ അവർ പരമാവധി കാശ് കൂടുതലാക്കാൻ നോക്കുമ്പോൾ അത്രയും കൂടുതലവരെന്ത് ചെയ്യുന്നു നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു പിന്നെ ക്യൂ നിൽക്കുക നീണ്ട ക്യൂ നിൽക്കുക പിന്നെ എന്തെങ്കിലും നമ്മൾ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽപ്പോലും നമ്മുടെ പേരിനനുസരിച്ചല്ലാ വിളിക്കണത് നമ്മളിപ്പം തലേന്ന് ബുക്ക് ചെയ്തു നാളത്തേക്ക് പോവേണ്ടേതാണെങ്കിൽ നമ്മൾ തലേന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽപ്പോലും ആ ഒരു സമയമാവുമ്പോൾ നമ്മൾ വിളിക്കൂല്ല അത്രയും നമ്മൾ വെയ്റ്റ് ചെയ്തിരിക്കണം അപ്പം മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ പുറത്തുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഹോസ്പിറ്റലാണെങ്കിൽ നല്ല ഭേദമാണ് എന്താണെങ്കിലും ഇപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിലും നമ്മൾക്കായിരിക്കും പ്രിഫറൻസ് പ്രയോരിറ്റി കൂടുതൽ കിട്ടുന്നതും ബുക്ക് ചെയ്ത ആളുകൾക്കായിരിക്കും പ്രയോരിറ്റി കൂടുതൽ കിട്ടുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ വച്ചുനോക്കുമ്പോൾ ശുചിത്വം അതൊക്കെ പ്രൈവറ്റ് ആണെങ്കിലും ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം കൊണ്ടും എന്താ പറയുക ക്ലീൻ ആണ് പണ്ടത്തെ കാലത്ത് വെച്ചുനോക്കുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ നല്ലൊരു ഇതാണ് ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു സാഹചര്യമാണ് എന്താണ് ക്യൂ നിൽക്കുക ചെലവ് കൂടൽ ആ ഒരു സംഭവമാണെപ്പോഴും നമ്മൾ എത്ര ബുക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് നമ്മൾ കിട്ടില്ല ആ ഒരു പ്രയോരിറ്റി ഇപ്പോഴും നമുക്ക് തരുന്നില്ലായെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്